ഹലോ നമസ്കാരം താങ്കൾ ഇന്നലെ പറഞ്ഞപോലെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് വേണ്ടി ആധാർ കാർഡ് ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ട് അയക്കാൻ നേരിട്ട് തരാൻ പറ്റിയില്ല പക്ഷെ ആധാർ കാർഡിൻ്റെ ഡിജി ലോക്കർ ഞാനിപ്പോള് നോക്കിയപ്പോള് അവൈലബിൾ ആണ് ആ ഒരു ഡോക്യുമെൻ്റ് ഞാന് എങ്ങനെയേലും ഇ മെയിൽ വഴി ഞാൻ നിങ്ങൾക്ക് അയക്കാം ഈ ആധാർ കാർഡ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഡോക്യുമെൻ്റ്സ് ആവശ്യം ഉള്ളതായിട്ടുണ്ടോ ആധാർ കാർഡ് ഞാൻ മാസ്ക്ഡ് ടൈപ്പ് ആധാർ കാർഡ് ആണ് അയക്കുന്നത് അപ്പോള് ആധാർ നമ്പറും കാര്യങ്ങളും ഉണ്ടാവും ഈ ഒരു ആധാർ കാർഡ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് വേണ്ടി വേറെ എന്തെലും ഡോക്യുമെൻ്റ്സ് വല്ലതും ആവശ്യമുള്ളതായിട്ട് ഉണ്ടോ ഈ ഒരു ഡോക്യുമെൻ്റ് ഞാൻ കുറച്ച് ജോലിത്തിരക്കിലായതുകൊണ്ട് എനിക്ക് ഡോക്യുമെൻ്റ് തരാൻ പറ്റിയില്ല ഉടൻ തന്നെ ഞാൻ ഈ ഒരു ഡോക്യുമെൻ്റ് ഇ മെയിൽ വഴി അയക്കാം ഇതല്ലാണ്ട് എന്തെങ്കിലും ഡോക്യുമെൻ്റ് വേണമെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താല് മതി